ഈ നൃത്തം എന്നു പറയുമ്പോള്ത്തന്നെ ഇപ്പോള് പല തരത്തില് ആണല്ലോ നൃത്തമെന്നു പറയുമ്പോള് ഇപ്പോള് നമ്മള് ഇതില്പ്പറഞ്ഞിരിക്കുന്നതു പോലെ തന്നെ നാടോടി നൃത്തമുണ്ട് ബോളിവുഡ്ഡ് അല്ലെങ്കില് ക്ളാസിക്കലുണ്ട് അതുമല്ലെങ്കില് നമ്മള്ക്ക് എന്തുവാണു പറയുന്നതിപ്പോള് ബ്രേക് ഡാൻസ് അതുപോലെയൊക്കെ ഒരുപാട് പല നൃത്തമെന്നു പറയുന്ന പല തരത്തില് ഉള്ള ഇതാണ് അപ്പോള് ഇപ്പോള് ഇത് ഏതായാലും ഈ നാടോടി നൃത്തം ബോളിവുഡ്ഡ് നൃത്തവും ക്ളാസ്സിക്കലും തമ്മില് യാതോരു വിധത്തിലുള്ള സമാനതകളുമില്ല നാടോടി നൃത്തം പഠിക്കുന്നതിന് നാടോടി നൃത്തത്തിന്റേതായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോള് ബോളിവുഡ്ഡ് നൃത്തമെന്നു പറയുമ്പോള് അതിനതിൻ്റേതായ രീതികളും അല്ലെങ്കില് അത് കളിക്കുന്നതിനുണ്ടാവുന്ന രീതികളും അല്ലെങ്കില് അത് പഠിക്കുമ്പോള് പഠിക്കുന്നതിനുണ്ടാവുന്ന രീതികളും എല്ലാം വളരെയധികം വ്യത്യാസമായിരിക്കും